എന്നെ സന്തോഷിപ്പിക്കുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൂടുതലായിട്ട് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയാ യാത്ര പോകാൻ വേണ്ടിട്ട് ബൈക്ക് എടുക്കുക പിന്നെ നല്ല ബൈക്കിൽ യാത്ര പോവുക അങ്ങനെ അതൊക്കെയാണ് എന്നെ ഭയകരമായിട്ട് സന്തോഷിപ്പിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഫാമിലി ഒത്തിട്ട് എവിടെങ്കിലും ഒക്കെ പോകാനുള്ള ഇതുണ്ടാകും അപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഓരോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ഒരു സന്തോഷോം കാര്യങ്ങൾ ഒക്കെ വരും ഇപ്പോൾ നമുക്ക് നൈറ്റ് പോകാൻ ഒക്കെ ഭയങ്കര ഇത് ഇഷ്ടമാണ് നൈറ്റ് ഇങ്ങനെ നമുക്ക് ഇപ്പം വണ്ടിയൊക്കെ എടുത്ത് നൈറ്റ് റൈഡ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമൊക്കെയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് ഇപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുക രാ വൈകുന്നേരം വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുക പിന്നെ ക്രിക്കറ്റ് കളിക്കുക പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് സന്തോഷമുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ